എനിച്ച് എൻ്റെ മകൾ നാലു ദിവസം മുമ്പ് ഒരു ഷർട്ട് വാങ്ങി തന്നു ഓട്ടോവിൻ്റെ കമ്പനിയാണത് നല്ല നീല കളർ അതിന്മേൽ ആകാശ നീല കളറുകളിൽ കറുപ്പ് കറുപ്പ് കളറും കറുപ്പ് കള്ളിയൊക്കെ കൂടിയായിട്ടുള്ള ഷർട്ട് നല്ല നല്ല വിലയൊക്കെയുണ്ട് കാരണം ഓട്ടോവിൻറ്റേത് അങ്ങനെയാണ് പക്ഷേ അതിട്ടിട്ട് നല്ല രസമുണ്ട് എക്കിഷ്ടമായി എല്ലാവരും പറഞ്ഞു നല്ല രസമുണ്ട് പിന്നെ അത് തുണീൻ്റെ കൂടൊക്കെ കൂടൊക്കെ നല്ല രസമുണ്ട് നല്ല രസമുണ്ട് കഴിഞ്ഞ ദിവസം കല്യാണത്തിനു പോയപ്പോൾ ആ ആ ഷർട്ടാണ് ഇട്ടിരുന്നത് എല്ലാവരും പറഞ്ഞു നല്ല രസമുണ്ടെന്ന്